ഹലോ ഞാൻ സ്വിഗ്ഗീലൊരു എന്താ പറയുക പ്രൊഡക്ട് ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത് ഞാൻ ഓട്ടോ പേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്ന് ക്യാൻസൽ ചെയ്ത് തരാൻ പറ്റുവോ ആ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി മതിയാരുന്നു ആ ഓക്കേ ഞാനിതിന് മുമ്പ് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങള് അവിടുന്നാണ് നമുക്ക് ഓട്ടോ പേ ക്യാൻസല് ചെയ്ത് തന്നിട്ടുള്ളത് ആ എന്താവച്ച് കഴിഞ്ഞാല് എൻ്റെ അക്കൗണ്ട് എന്തോ പ്രശ്നം ഉണ്ട് അപ്പം വരുന്നില്ല എമൗണ്ട് പേ ആകുന്നില്ല അപ്പം നിങ്ങള് ക്യാഷ് ഓൺ ഡെലിവറി ആക്കി തരാമോ ആ ഓക്കേ ഞാന് ഒരു ഒരു ഫൈവ് കെൻ്റെ അടുത്ത് ഫുഡ് ഓർഡറ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ബൾക്കായിട്ട് ഓർഡറ് ചെയ്തിട്ടുണ്ട് പത്ത് പേർക്കുള്ളതാ ആം അപ്പോൾ ഒന്ന് ഓട്ടോ പേ ക്യാൻസല് ചെയ്ത് തരാൻ പറ്റുവോ ആ നിങ്ങളുടെ അതില് ഓട്ടോ പേ ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്താ ചെയ്യുക ആ നിങ്ങളൊന്ന് നോക്കുവോ സൈറ്റ് ഒന്ന് നോക്കുവോ ആ ഞാൻ ഓർഡറ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടൊള്ളു പ്രൊഡക്റ്റ് എത്താൻ സമയായിട്ടില്ല ആ ഓക്കേ ഓക്കേ ടാങ്ക് യു